ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത ഫുഡ് നല്ല കൃത്യ സമയത്ത് തന്നെ ഡെലിവറി ബോയ് എത്തിച്ചു ഞാൻ ഞാൻ ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഇല്ലാതെ ഞാൻ ഡെലിവറി ബോയ് വന്ന സമയം ഞാനിവിടെ വീട്ടിലില്ലായിരുന്നു എന്നിട്ട് പോലും അത് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ക്ഷമയോട് കൂടി ആ ഡെലിവറി ബോയ് വെയിറ്റെയ്തു നിന്നു അതെനിക്ക് വളരെ പിന്നെ ആ ഡെലിവറി ബോയ്നെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ നിങ്ങളെപ്പോഴും എപ്പോഴൊക്കെ ഞാൻ ഡെലിവറി ഓർഡർ ചെയ്യുന്നോ അപ്പോഴെല്ലാം കൃത്യ സമയത്ത് തന്നെ അത് എൻ്റെ വീട്ടിലെത്തിക്കുകയും പോലെ കൃത്യമായി തന്നെ വൃത്തിയായിട്ടും കൃത്യമായി തന്നെ കൃത്യസമയത്ത് തന്നെ എത്തിക്കാനായിട്ട് അത് ആ കമ്പനിക്ക് നല്ല ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോള് എല്ലാ വിധ അഭിനന്ദനങ്ങളൂം ഡെലിവറി ബോയ്ക്കും ആ കമ്പനിക്കും ഞാൻ നല്കാൻ ആഗ്രഹിക്കുന്നു